എഴുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ്